മറ്റുള്ള രാജ്യങ്ങളിലെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനമെന്ന് പറയുന്നത് പിന്നിലേക്കാണ്

നമ്മളിപ്പോൾ എന്തേലും ഒരു സ്കാനിങ് അങ്ങനെ ഉള്ള പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലത് പുറത്തേക്ക് സ്കാൻ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ പുറത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് അവർ ചെയ്ത് തരാറുള്ളത് നമുക്കതിൽ അവിടെ കൂടുതൽ ചിലവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇപ്പോഴും നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ചെയ്ത് തരുന്നത് പക്ഷേ നമ്മളിപ്പം പുറത്തുള്ള രാജ്യങ്ങളിൽ നോക്കുവാണെൽ നമുക്കൊരു ആക്സിഡൻറ്റ് കേസസൊക്കെ വന്നു പുറത്തുള്ള രാജ്യങ്ങളാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ട്രീറ്റ്മെൻറ്റാണ് അവർക്ക് മെയിനായിട്ടവർ നോക്കുക ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഫസ്റ്റ് തന്നതിന് ശേഷമാണ് നമ്മളുടെ ബാക്കിയുള്ള ഡീറ്റിയെൽസും കാര്യങ്ങളൊക്കെ അവരന്വേശിക്കുക ഒക്കെ ചെയ്യുന്നത് നമ്മളുടെ ഇന്ത്യയിൽ അത്രയ്ക്ക് പൊന് മുൻ പിന്നോട്ടല്ലാ എങ്കിലും കുറെ ഡവലപ്മെൻറ്റാകാനുണ്ട് നമ്മളുടെ ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് എങ്കിൽ പോലും കുറെ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റാണെങ്കിലും വേഗം വന്ന് ചെയ്യുന്നു നല്ല രീതിയിലാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് സെർവീസസൊക്കേ കൊടുക്കുന്നുണ്ട് അതുപോലെന്നാണെങ്കിൽ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും ഇതുപോലെതന്നെയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റല് കൂടുതലും ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് അവർ പെട്ടന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ലാന്ന് പറയുന്നില്ല പക്ഷേ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും അവർക്ക് ഫീസും കാര്യങ്ങളൊക്കെയാണെങ്കിൽ കൊടുക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ എന്താ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളെ ഇന്ത്യയിലുള്ള ആൾക്കാർ ആശ്രയിക്കുന്നത് അപ്പോൾ നമുക്കവിടെയാണെങ്കിൽ നല്ല സെർവീസ് അല്ലെങ്കിൽ നമുക്ക് പെട്ടന്നൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ അർജൻറ്റായിട്ടൊറു കേസിന് ഇപ്പോൾ ആക്സിഡൻറ്റ് കേസസൊക്കെയാണെങ്കിൽ പോകാൻ കൊണ്ടു ചെല്ലുകയാണെങ്കിൽ പെട്ടന്ന് നമ്മളുടെ ബാക്ക്ഗ്രൌണ്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താ സംഭവം അങ്ങനൊക്കെയുള്ളതാണ് അന്വേഷിക്കുക അവരാദ്യമേ ട്രീറ്റ്മെൻറ്റിനല്ലാ നോക്കുന്നത് പിന്നെ കുറച്ച് ഹോസ്പിറ്റൽസൊക്കെയുണ്ട് നമുക്ക് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് തരുന്നതും അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ സർവീസസൊക്കെ തരുന്നതും ഒക്കെയായിട്ട് കുറെ ഹോസ്പിറ്റലുണ്ട് നമ്മൾ ഒട്ടും നമ്മുടെ ഗവൺമെൻറ്റ് ഹോസ്പിറ്റല് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെ നമ്മളൊട്ടും തള്ളിപ്പറയുന്നത് അല്ലാ എന്നാലും കുറെ ഡവലപ് ഡവലപ്പ്മെൻറ്റാകാനായിട്ടുണ്ട്